ആ ആ ഇത് ന്യൂ ഫോം റെസ്റ്റോറൻറ് അല്ലേ ഞാൻ ഇന്നലെ ഒരു കുറച്ചു സാധനങ്ങൾ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ അതെ ആ അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ കൂപ്പണും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാണ് സംഭവം എന്നറിയാൻ ഞാൻ വിളിച്ചതായിരുന്നു നമ്മൾ അത് ഇന്നലത്തെ ഇതിൽ തന്നെ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുമോ അതോ ഇനി ഓർഡർ ചെയ്യുന്നതിലാണോ കിട്ടുക ഓക്കേ ഓക്കേ ഇനി ഓർഡർ ചെയ്യുന്നതിൽ അല്ലേ ആ അങ്ങനെ ആണെങ്കിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് ആ ഓക്കേ ഓക്കേ അതായത് എനിക്ക് ഒരു ഫുൾ മന്തി വേണമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലഡും കാര്യങ്ങളൊക്കെ വേണം പിന്നെ നമുക്ക് പൊറോട്ട ചിക്കൻ കറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടിവരും ആ ഓക്കേ ഓക്കേ അപ്പം അതൂം കൂടി വെച്ചിട്ട് എനിക്ക് അതിൻ്റെ കിഴിവും കാര്യങ്ങളൊന്ന് കിട്ടുമോ ഓക്കേ ഓക്കേ കൂപ്പൺ ഞാൻ വാട്സ്ആപ്പ് ചെയ്തേക്കാം ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് ഇട്ടു തരണേ ഓക്കേ എന്നാൽ